എൻ്റെ പ്രദേശത്ത് എനിക്കറിയാവുന്ന രാഷ്ട്രീയ പാർട്ടികളെന്ന് വെച്ചാല് മാർക്കിസ്റ്റ് കോൺഗ്രസ് പിന്നെ സ്വതന്ത്ര പാർട്ടിയുണ്ട് അതുപോലെ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണ് പാർട്ടി എന്നുള്ളൊരു ചിന്ത വരുന്നത് അപ്പോൾ കോളേജിലൊക്കെ പഠിക്കുമ്പം കെ എസ് യു അതുപോലെ എസ് എഫ് ഐ അതുപോലെ ബി ജെ പി എന്നിങ്ങനെയുള്ള പാർട്ടികളൊക്കെ കാണാം നമ്മൾക്ക് അറിയാവുന്ന എനിക്കറിയാവുന്ന പാർട്ടിക്കാര് എന്നുവെച്ചാല് എൻ്റെ എൻ്റെ ഉമ്മ ഉമ്മാമ്മയുടെ അനിയത്തിയുടെ മകൻ ഒരു കോൺഗ്രസ് നേതാവാണ് ഈയൊരു ഈയൊരു ഇവിടെയുള്ള ഒരു മെമ്പറാണ് മെമ്പറെന്ന് വെച്ചാല് നമ്മുടെ ഒരു നമ്മൾക്ക് പഞ്ചായത്തിൻ്റെ അതായത് പഞ്ചായത്തിൽ ഓരോ മെമ്പർമാർ ഓരോ പ്രദേശത്ത് ഓരോ മെമ്പർമാർ ഉണ്ടാവുമലോ അപ്പോൾ നമ്മൾക്ക് എനിക്കിപ്പോൾ എൻ്റെ മോളുടെ ജനന സർട്ടിഫിക്കറ്റെടുക്കൻ വേണ്ടിയിട്ട് എന്നെ ഒരുപാട് സഹായിച്ചു പഞ്ചായത്തിലാണെങ്കിലും വന്നിട്ട് സഹായിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഈ മെയിൻ റോഡിൽ നിന്നും ഒരു താഴേക്കാണ് നമ്മളെ റോഡ് വരുന്നത് ആ റോഡ് ഒരുപാട് കുണ്ടും കുഴിയുമുള്ള റോഡ് ആയിരുന്നു അപ്പോൾ പാർട്ടി നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിലെ ആ ഒരു മെമ്പർ തന്നെയാണ് നമ്മളെ ഈ റോഡ് ഒരു നന്നാക്കാനായിട്ട് സഹായിച്ചത് ഇപ്പോൾ നല്ല വൃത്തിയുള്ള ടാർ ചെയ്ത റോഡാക്കി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബേക്കിലുള്ളൊരു വേസ്റ്റ് പോകുന്ന ചാല് നികത്തി തന്നിട്ടുണ്ട് നല്ല സിമന്റ് ഒക്കെ ഇട്ട് അത് പഞ്ചായത്തിൽ നിന്നും ആ ആ ഒരു പദ്ധതി പാസാക്കിയിട്ട് അതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്